ആ ഈ പറയുന്ന കണക്ക് നമ്മള് കൃഷിയക്കെ കുറച്ച് ആൾക്കാര് ചെയ്യും കുറച്ച് ആൾക്കാര് ചെയ്യുന്നില്ല അതിൻ്റെ കാരണമെന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ചെയ്യുമ്പം നമ്മുടെ കുടുംബത്തില് അല്ലെങ്കിൽ നമ്മള് പരമ്പരാഗതമായിട്ട് ചെയ്ത് വന്ന രീതി കണ്ടാണ് നമ്മളുവൊക്കെ അതിൽ ചെയ്യുന്നത് ഇപ്പോൾ ചിലരെല്ലാം അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറി ലൈഫ് സ്റ്റൈല് മാറി എന്ന് വെച്ചാൽ എല്ലാവരും ടൗൺ ഏര്യയിലൊക്കെ ജീവിക്കണം എന്ന് തോന്നുന്നവരാണ് എന്നാലും ടൗൺ ഏര്യയിൽ ജീവിക്കുന്ന കുറെ പേര് ടെറസിലൊക്കെ ചെയ്യുന്നുണ്ട് ചിലർക്കൊന്നും സമയമില്ല അവരെല്ലാം സോഷ്യൽ മീഡ്യയിലൊക്കെ ടൈം ചിലവഴിച്ച് അങ്ങനെ ഒക്കെ പോകുന്നവർക്ക് അതിനൊന്നും സമയില്ല അവർക്കെല്ലാം പിന്നേ റെഡിമേയ്ഡ് ഫുഡ്ഡാണവർക്ക് താൽപര്യം അതായത് അവര് വിചാരിക്കുന്നത് ഇത്രയും സമയം ഇതിൻ്റെ കൂടെ മെനക്കെട്ടിട്ട് വലിയ പ്രൊഡക്ഷനൊന്നും ഉണ്ടാകുന്നില്ല വലിയ ബെനഫിറ്റുവില്ല പിന്നെ അതിൽ നിന്ന് എടുത്ത് നമ്മള് പാചകം ചെയ്യുന്നു എന്നത് മാത്രമല്ലേ ഉള്ളു അത് ചിലത് നട്ടാൽ കിളിർക്കുന്നില്ല കാരണം അത്രയ്ക്ക് പരിചരണം കൊടുത്തില്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നും അത്രയും നമ്മളുദ്ദേശിക്കുന്ന രീതിയിൽ ഉള്ളൊരു വിളവ് ലഭിക്കത്തില്ല അപ്പോൾ അങ്ങനൊരു എന്താ പ്രൊ പ്രൊഡക്ഷൻ ഉണ്ടാകാത്ത അല്ലെങ്കിൽ അത്രയും പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു ഉൽപാദനം നടക്കാത്തതുകൊണ്ടായിരിക്കാം അവര് ചിലപ്പോൾ അതിനോട് വിമുഖത കാണിക്കുന്നത് പിന്നെ എല്ലാവരുടേയും ജീവിതം ഇപ്പം ഭയങ്കര തിരക്ക് പിടിച്ചൊരു ജീവിതമാണ് രാവിലെ എല്ലാവരും ജോലിക്ക് പോകുന്നു വൈകിട്ട് വരുന്നു പണ്ടുള്ള രീതിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് രാവിലെ എഴുന്നേക്കുന്നതിനോട് മടി അതുപോലെ ഒരു വ്യായാമം എന്ന് പറയുന്നത് പണ്ടൊക്കെ കൃഷിയിടത്തിലായിരുന്നു വ്യായാമം അതായത് വെള്ളം കോരി എല്ലാത്തിനും ചെടിക്കൊക്കെ നനയ്ക്കുന്നു ഇത് പിന്നെ കായ്കനികള് ഒക്കെ പറിച്ചെടുക്കാന് അല്ലെങ്കില് ഈ പച്ചക്കറിയൊക്കെ ആണേലും പറിച്ചെടുക്കുന്നതിനും ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം ഇപ്പം ചെറിയ കാന്താരിയൊക്കെ പൊട്ടിച്ചെടുക്കുന്നതിന് നമുക്ക് കുറച്ച് സമയം നമ്മള് കുറച്ച് ക്ഷമയുണ്ടെങ്കിലേ നടക്കത്തൊള്ളു അല്ലാതെ നമ്മള് നിന്ന നിൽപ്പില് ഈ കാണുന്ന ഒരു കപ്പ് കാന്താരിയുടെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഓ ഇത്രയുമുണ്ടോ പക്ഷേ അത് പറിച്ചെടുക്കുന്നതിന് അതിൻറ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ക്ഷമ എന്ന് പറയുന്നത് ആർക്കുമില്ല പിന്നെ കഷ്ടപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ടും ഇന്നത്തെ തലമുറയിൽ കാണുന്നുണ്ട് കാരണം അവര് അവരുടെ ശരീരം വിയർക്കാൻ വേണ്ടി ജിമ്മുകളിൽ പോകുന്നു അതിൻ്റെ ഒര് പത്തിലൊന്നെങ്കിലും വീടുകളില് കഷ്ടപ്പെടുകയാണെങ്കില് അല്ലെങ്കിലൊരു ശ്രമം നടത്തുകയാണെങ്കില് നമുക്കാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് വീട്ടിൽതന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും അതിൻ്റെ ഗുണം എന്താണെന്നറിയാത്തത് കൊണ്ടും അല്ലെങ്കിലതിനോടൊന്നും ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ വിശ്വസിക്കാൻ തയാറാവാത്തത് കൊണ്ടും ഇവയൊക്കെ മാത്രമായിരിക്കാം ഇന്ന് കാണുന്നവര് പലരും ഇന്ന് കാണുന്ന തലമുറയിൽ പെട്ട പലരും ഇതൊന്നും ചെയ്യാൻ കഴിയാത്തത് എന്നാൽ പഴയ തലമുറയിൽ ഉള്ളവര് എന്തവാണേലും ഇപ്പോൾ ഒരു ചേമ്പാണേലും കുഴിച്ചിടുവോ അല്ലെങ്കില് കാച്ചില് അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ മണ്ണില് ഇടുകയാണെങ്കിൽ നമ്മള് പ്രതീക്ഷിക്കാതെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളൊരു സമയത്തായിരിക്കും നമ്മുടെ ഒന്നോ രണ്ടോ നേരത്തെ ഭക്ഷണമാകും ആ കാച്ചിലും ചേമ്പുമൊക്കെ പിന്നെ അങ്ങനെയുള്ള ഭക്ഷണത്തിനോട് പലർക്കും ഇന്ന് താൽപര്യവുമില്ല അവർക്കെല്ലാം ജെങ്ക് ഫുഡ്ഡ്കളോടാണ് താൽപര്യം അപ്പം അവര് അതിന് വേണ്ടി മാത്രമേ ശ്രമിക്കത്തുള്ളു കാരണം ഇപ്പോൾ അവർക്ക് അവരുടെ വീടുകളിൽ ഇരുന്ന് അവരുടെ കട്ടിലിലിരുന്നും ഫോണിലൂടെ അവർക്ക് സാധനം ബുക്ക് ചെയ്യാം വീട്ട് വാതിക്കലാളുകള് സാധനം കൊണ്ടുവരും അവരുടെ ഭക്ഷണം റെഡി മേഡായിട്ടുള്ള ഭക്ഷണവും കൊണ്ട് വരും അപ്പം അത് ബിക്കോസ് ഇത്ര രൂപയെ അതിന് ചിലവാകത്തുള്ളു അപ്പം അതുകൊണ്ട് വിശപ്പടക്കാവുന്ന കാര്യമേ ഉള്ളു ബാക്കി സമയം അവർക്ക് ഫോണിൽ ചെലവഴിക്കാം അല്ലെങ്കിൽ ടീ വി കാണാം അല്ലെങ്കിലുറങ്ങാം അപ്പം അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും ഇങ്ങനെ ഉള്ള കൃഷിയിലേക്ക് ഒന്നും ഇറങ്ങിച്ചെല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടായിരിക്കാം എല്ലാവരും കൃഷി വേണ്ടാന്ന് വെക്കുന്നത് കൃഷിയുടെ പ്രാധാന്യവെന്ന് ചോദിച്ചാല് നമുക്ക് ചെടികൾ വളർത്തുമ്പോൾ നമുക്ക് ഓക്സിജൻ കണ്ടൻറ്റ് കൂടുന്നുണ്ട് പിന്നെ നമ്മുടെ കണ്ണിനൊര് കുളിർമ്മയാണ് പച്ചപ്പ് കാണുമ്പോൾ പിന്നെ നമുക്ക് വിഷമയമില്ലാത്ത സാധനങ്ങൾ നമുക്ക് തന്നെ പാചകം ചെയ്ത് തന്നെ കഴിക്കാം നമുക്ക് വിശ്വസ്തതയോടെ കഴിക്കാം നമുക്ക് വേറെ അസുഖങ്ങളൊന്നും വരില്ല എന്നൊരു വിശ്വാസ്യതയുണ്ട് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒക്കെ വേണ്ടി നമ്മൾ ചെലവഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടുന്നതാണ് മനസ്സിന് അതുപൊലെ ശരീരത്തിന് നമുക്ക് നല്ലൊരു അദ്ധ്വാനവും കൂടിയാണ് കൃഷി എന്ന് പറയുന്നത് അപ്പം കൃഷിയെന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്